കൃഷി ചെയ്യുന്നവർക്ക് ഒരുപാട് വെള്ളമാവിശ്യമാണ് ഇപ്പോൾ നെൽക്കൃഷി ആണെങ്കിലും നെൽക്കൃഷി ചെയ്യുന്ന സമയത്ത് മഴയുള്ളപ്പോൾ മാത്രമേ നെല്ല് കൃഷി ചെയ്യാറുള്ളൂ അതുപോലെതന്നെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കാണെങ്കിലോ ഒരുപാട് വെള്ളമാവിശ്യമാണ് നമ്മളെല്ലാ ദിവസവും നനച്ചു കൊടുത്താൽ മാത്രമേ കൃഷി നമുക്ക് ആവശ്യമുള്ള വിളവ് തരുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ചിലപ്പോൾ കൃഷി ചെയ്യുന്നിടത്ത് ഒരു കിണർ കുത്തുക കുളം കുത്തുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊരു വെള്ളം ജലസേചനമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൃഷി ചെയ്യാൻ പോവുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ പൈപ്പിട്ട് ഇപ്പോൾ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ നമുക്ക് വെള്ളം വരാനുള്ളത് അപ്പോൾ ആ പദ്ധതികളെല്ലാം ഉള്ള ഒരു സ്ഥലം നോക്കി അല്ലെങ്കിൽ പൈപ്പിട്ടിട്ടൊക്കെയായിരിക്കും നമ്മൾ കൃഷി നനയ്ക്കുകയും കൃഷി ചെയ്യുന്നത് ഇപ്പോൾ പച്ചക്കറികളൊക്കെ നട്ടു കഴിഞ്ഞാൽ നനയ്ക്കുകയൊക്കെ ചെയ്യാനുള്ളത് പദ്ധതി അപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ നെൽക്കൃഷിയാണ് കൂടുതലായിട്ടും ചെയ്യാറ് അപ്പോൾ അതിന് മഴയുള്ള സമയത്താണല്ലോ നെൽക്കൃഷി ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പച്ചക്കറിയൊക്കെ അതിൻ്റെ വാഴ ആണെങ്കിലും വാഴയ്ക്ക് കണക്കേ ഒരുപാട് വെള്ളമാവിശ്യമാണ് വാഴ പമ്പ് വെള്ളം പമ്പു ചെയ്തിട്ട് കൃഷി ചെയ്യുകയാണ് ചെയ്യല്